കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ മുന്നണി രാഷ്ട്രീയമാണ് ആയതിനാൽ തന്നെ വ്യക്തമായ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തത വ്യക്തത വ്യക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം അവരുടെ ന്യായമായ അവരുടെ കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും തടസ്സങ്ങൾ നേരിടും നമ്മുടെ പ്രാദേശിക കോർപ്പറേഷൻ ഭരണം കോർപ്പറേഷനാണ് ഭരണം നടത്തുന്നത് നൂറ് പേരുടെ ഉള്ള കൗൺസിലാണ് നമ്മുടെ പ്രാദേശിക ഭരണം നടത്തുന്നത് എക്സി ശരിക്കും എക്സിക്യൂട്ടീവ് ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥരാണ് ശരിക്കും എക്സിക്യൂട്ടീവ് ആയി വരുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥരാണ് എക്സിക്യൂട്ടീവ് ലെവലുകളിലേക്ക് അവരുടെ കൈകളിലാണ് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുക ഓ കിട്ടുന്നത് ശരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നാണ് കിട്ടേണ്ടത് എന്നാലും രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുന്ന യൂണിയനുകളാണ് അവരെയും നിയന്ത്രിക്കുന്നത് എന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ വലയുന്നത് ജനമാണ് ജനങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രയോജനം കിട്ടില്ല തന്നെ ശരിക്കും രാഷ്ട്രീയക്കാർ തന്നെയാണ് അവരും രാഷ്ട്രീയക്കാരായി മാറുന്നു പബ്ലിക് സർവീസ് എന്ന സർവെൻ്റെന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയക്കാരെ അല്ല രാഷ്ട്രീയക്കാരാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഇവിടെ വലയുന്നത് ശരി ശരിക്കും ജനങ്ങളാണ് അവർ രാഷ്ട്രീയ ചായ്വ് നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്ത് ചെയ്തു കൊടുക്കുകയുള്ളൂ ചെയ്തു തരികയുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു എതിർകക്ഷിക്കെന്നോ നിക്ഷ്പക്ഷമായി നിൽക്കുന്ന ആളിനോ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു കാര്യവും സമയത്തിന് ചെയ്തു കിട്ടില്ല കാരണം രാഷ്ട്രീയ ചായ്വുകൾ തന്നെയാണ് നിയമസഭ പാസാക്കുന്ന നല്ല നല്ല എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ വരുമ്പോഴും

പിന്നെ പൊതുവായിട്ട് നിയമസഭയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിയമസഭ പുതിയ പുതിയ കാര്യ ബില്ലുകളിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യും എന്നുള്ള പ്രതീക്ഷ നമ്മൾ വച്ച് പുലർത്തുകയാണ് ചെയ്യുന്നത് ശരിക്കും പക്ഷേ അത് അതും അടിസ്ഥാനപരമായി അത് പ്രാദേശിക തലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എറേസ് ചെയ്യുന്നത് അത് പിന്നെ നേ ശരിക്കും സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആണെങ്കിൽ ഈ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു അവർ സജീവ രാഷ്ട്രീയത്തിൽ ആവുമ്പോഴേക്കും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയും നേരത്തെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം അവർക്ക് കൂടുതൽ മെച്ചമുണ്ടാവുകയും ചെയ്യും പക്ഷേ ഇത് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതെ നമ്മൾ ശരിക്കും നിഷ്പക്ഷരായി നിൽക്കുന്നവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രയോജനം ഒന്നും കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല ശരിക്കും അവിടെയും പിന്നെ അതിലൊക്കെയും നമുക്ക് രു ജുഡീഷ്യറിയുടെ സംവിധാനം കൂടെ ഉള്ളതുകൊണ്ട് അതിൽ ഫൈറ്റ് ചെയ്തു നിൽക്കാൻ പറ്റുന്നുള്ളവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും അല്ലാതെ ശരിയായി നോർമലി നമുക്ക് അതിന് മാത്രമുള്ള മെച്ചമൊന്നും പ്രാദേശിക ഭരണത്തിലോ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങളിലോ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഒരു കാര്യവും ഇതുവരെ അങ്ങനെ ഒന്നും ഒരു മെച്ചം ഇതുവരെയും ഒരു മെച്ചപ്പെട്ട എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു വ്യവസ്ഥയിലോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ അങ്ങനെ കാര്യം മാത്രമായിട്ട് മാറ്റം ഒന്നും ഇതുവരെയും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല